വൈക്കോലെന്ന് പറയുമ്പോൾ തന്നെ അത് പ്രകൃതിയിൽനിന്നും നമുക്ക് കിട്ടുന്ന സാധനമാണേ കൃഷി കഴിയുമ്പഴ്ത്തേക്കും അത് എന്നാ പാടത്ത് പന്തലിക്കുന്ന സാധനമാണ് കൃഷി കഴിഞ്ഞ് കൃഷി പാടത്ത് വരുന്ന ബാക്കി വരുന്ന ഇതെല്ലാം കൂടെ നമ്മള് ഒന്നിച്ചെടുത്ത് വൈക്കോലാക്കി ഉപയോഗിക്കാറുണ്ട് പ്രകൃതി ദൃശ്യങ്ങള് അതില് പ്രകൃതി രമണീയമായ കാലിത്തൊഴുത്ത് വൈക്കോല് കൊണ്ടൊക്കെ മേഞ്ഞ് ഒക്കെയൊണ്ടാക്കുവാണെന്നുണ്ടെങ്കില് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യം നോക്കുമ്പോള് നമ്മള് കാലിത്തൊഴുത്താണെങ്കിലും നല്ല ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മള് ചെയ്യാതെ വൈക്കോലുകൊണ്ട് മേഞ്ഞ ആട്ടിൻ തൊഴുത്തുകളും പശുത്തൊഴുത്തുകളും ഒക്കെ ഉണ്ടാക്കുവാണെന്നുണ്ടെങ്കില് കുറച്ചുകൂടെ നമുക്ക് പ്രകൃതിയില് അലിഞ്ഞുചേരാനായിട്ട് സാധിക്കും അതുപോലെ ചിത്രങ്ങള് ചിത്രങ്ങളൊക്കെ നമ്മള് വരക്കുമ്പഴ്ത്തേക്കും വരയ്ക്കുന്ന ചിത്രത്തില് അതായത് മുടി താടി മീശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വൈക്കോല് വച്ചിട്ട് ചെയ്യുവാണെങ്കില് കുറച്ചുകൂടെ ഒരു ഭംഗിയായിരിക്കും നമുക്ക് കാണാനായിട്ട് അതിൻറ്റെ അതിൻ്റെ മുകളിലായിട്ട് വേറെ എന്തെങ്കിലൊക്കെ ചെയ്യുമ്പഴ്ത്തേക്കു മെയ്നായിട്ട് വൈക്കോലുകൊണ്ട് ചെയ്യുകയാണെങ്കില് അതായിരിക്കും കൂടുതല് നല്ലത് പിന്നെ ക്രിസ്മസ് പുൽക്കൂട് നിർമ്മാണത്തിന് ഒക്കെയാകുമ്പോള് കൂടുതലും വൈക്കോലിൻ്റെ ആ ഒരു ആവശ്യകത ആ സമയത്ത് കൂടുതലാണ് കുറച്ച് വൈക്കോല് നമ്മള് ശേഖരിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കില് ആ സമയത്ത് പുൽക്കൂടൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് പുൽക്കൂടൊക്കെ നിർമ്മിക്കാനായിട്ട് സാധിക്കും കൂടുതല് പ്രകൃതി മനോഹരമായ രീതിയില് വൈക്കോല് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ പശു പിന്ന ആട് അങ്ങനെയുള്ളതിനൊക്കെ നമ്മള് കൂടുതലും ഈ കാലിത്തീറ്റ അങ്ങനെയുള്ള കെമിക്കൽ സാധനങ്ങൾക്കത് വൈക്കോൽ കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അതുങ്ങൾക്ക് ആ ഒരു പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനായിട്ട് സാധിക്കും